എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് കൂളറാണ് കൂളറിനെ കുറിച്ച് പറയാനാണെങ്കില് നമുക്ക് ഇപ്പം എന്താ ചൂടുള്ളൊരു കാലാവസ്ഥയില് ചൂട് കിട്ടാണ്ടിരിക്കാനും അപ്പം നമുക്കിപ്പോൾ നല്ല രീതിയിലുള്ള തണുപ്പ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് കൂളറ് കാര്യമായിട്ട് നമ്മള് ഉപയോഗിക്കുന്നത് അപ്പോൾ കൂളറ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ഇപ്പോൾ അതിൻ്റെ ഒരു മെയിന് നെഗറ്റീവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കൂടുതലായിട്ടും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അത് നേരിട്ടുള്ളൊരു കാറ്റ് അടിച്ചു കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് ജലദോഷവും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതിനകത്ത് പൊടിയൊക്കെ വേഗം അതിനകത്ത് പിടിച്ചിരിക്കുക അപ്പം അത് കാറ്റ് വീശുന്നതിനനുസരിച്ച് നമ്മുടെ മുഖത്തേക്കും മൂക്കിലേക്കൊക്കെ കയറിയിട്ട് ഭയങ്കര പ്രശ്നങ്ങളാ അലർജിയും കാര്യങ്ങളൊക്കെയിണ്ടാവുക അപ്പം അതൊരു നെഗറ്റീവായിട്ടാണ് എനിക്ക് വേണമെങ്കിൽ പറയാനുള്ളത് പക്ഷേ ഓൾ ഓവറോള് പറയുകയാണെങ്കില് അതിന് നല്ലൊരു പ്രൊഡക്റ്റാണ് കാരണം നമുക്ക് നല്ല രീതിയിലുള്ളൊരു കാറ്റ് അതിനകത്തിപ്പം നമുക്ക് ഫ്രിഡ്ജിനുള്ള ക്യൂബ് കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാല് നല്ല അതായതിപ്പോൾ എസിനേക്കാട്ടും നല്ലൊരു രീതീയിലുള്ള തണുപ്പ് കാര്യങ്ങളൊക്കെ അതിനുണ്ടാകും അപ്പോൾ അതൊരു നല്ലൊരു പ്രൊഡക്റ്റാണ്